എൻ്റെ വിഭവങ്ങൾ കൂടുതൽ രുചികരമാകാൻ വലിയ പ്രത്യേകത ഒന്നും ഇല്ലാ പ്രത്യേക തന്ത്രങ്ങളൊന്നും അധികം ഉപയോഗിക്കാറില്ലാ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് മറ്റൊരാൾക്ക് ഇഷ്ടമായാൽ അതിൽ നമ്മുടെ ഒരു സ്നേഹത്തോട് കൂടി ഉണ്ടാക്കിയെന്നതും അതുപോലെ നമുക്ക് വിഷമിച്ചു കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കണതും തമ്മിൽ നല്ല വ്യത്യാസമാണ് നമ്മൾ സ്നേഹത്തോടെ ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്താൽ അതിൽ അവർക്ക് മനസ്സ് നിറഞ്ഞ് കഴിക്കാനും അതുപോലെ അതിലെ രുചി കൂടാനും ഒരു കാരണമാണ് പിന്നേ പൊതുവേ ഇപ്പോഴത്തേ പോലെയുള്ള പിന്നേ ഇപ്പോൾ എല്ലാം പാക്കറ്റുകളിൽ നിന്ന് വാങ്ങാൻ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ഇപ്പോൾ ബിരിയാണി മസാല ഒക്കേ നമുക്ക് പാക്കറ്റിൽ തന്നേ ലഭ്യമാണ് എന്നാൽ ആദ്യമൊക്കേ വീട്ടിലൊക്കേ ബിരിയാണിയൊക്കേ ഉണ്ടാക്കുമ്പോൾ പിന്നേ ഈ നമ്മുടേതായ ഏലക്കായ അതുപോലെ ഗ്രാമ്പൂ പട്ട ക ജീരകം അതൊക്കേ ഉപയോഗിച്ചിട്ട് ഒരു ബിരിയാണി മസാല നമ്മുടെ വീട്ടിൽ തന്നേ ഉണ്ടാക്കിയിട്ടാണ് ബിരിയാണി വെക്കാറ് അതിനും പിന്നേ റെഡി മെയ്ഡ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡും തമ്മിൽ നല്ല വ്യത്യാസം ആണ് ഞാൻ കൂടുതലും തനി നാടൻ രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നേ അതിന് രുചിയും കൂടുതലാണ്